ആ പറഞ്ഞോ മനസിലായി നമ്പര് കണ്ടപ്പം

വീട്ടിലെ കാര്യങ്ങൾ പിന്നെ ഞാനല്ലാതെ വേറെ ആരാ അന്നേഷിക്കുന്നത് അമ്മക്ക് എന്നാ ബുദ്ധിമുട്ടാ അമ്മക്ക് സമയത്തിന് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് അമ്മക്ക് ഇതെല്ലാം ഞാൻ ചെയ്തുകൊടുക്കുന്നുണ്ട് എനിക്കും വീട്ടിലെ കാര്യങ്ങളില്ലേ എനിക്കും വേറെ കാര്യങ്ങളക്കെ ഇല്ലേ അമ്മയുടെ മാത്രം കാര്യം നോക്കിയാൽ മതിയോ ആഹാരമുണ്ടാക്കി വെക്കുന്നുണ്ട് അമ്മക്ക് ഇച്ചിരി എടുത്ത് കഴിക്കരുതോ സമയത്തിന് ഞാനുണ്ടാക്കി വെക്കുന്നില്ലേ എനിക്ക് ഇപ്പം എടുത്തുകൊടുക്കാൻ സമയം കിട്ടത്തില്ലായിരിക്കും ഞാൻ എവിടെയെങ്കിലും പുറത്തുപോകുമ്പഴെ ഉള്ളൂ അമ്മ തന്നെ എടുക്കുന്നത് അല്ലാത്തപ്പോൾ ഞാൻ എടുത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ അവിടെ ഇല്ലാത്തപ്പം അമ്മക്ക് തന്നെയാണെങ്കിലും ഇച്ചിരി എടുത്തുകൊടുക്കാം അല്ലാത്തതിനൊക്കെ അമ്മക്ക് പറ്റുമല്ലോ അ പിള്ളേർ പള്ളിക്കൂടത്തിൽ പോകുന്ന പിള്ളേർ എടുത്തുകൊടുക്കുമോ ഇപ്പം മ് അ അത് ഞാൻ പിള്ളേരോട് ഞാൻ ഇതെല്ലം എടുത്ത് ഡൈനിങ് ടേബിളെ വെച്ചിട്ടാണ് പോകുന്നത് പരാതിയിപ്പം പരാതി പറയോ അമ്മക്കിപ്പം പറയരുതോ എന്നേക്കുറിച്ച് പറയാൻ അതല്ലേ ഉള്ളൂ ഇപ്പോൾ നിങ്ങൾ അവിടെ ഇരിക്കുന്നതുകൊണ്ട് കാണുന്നില്ലല്ലോ ഇവിടെ നടക്കുന്ന എന്താ സംഭവങ്ങൾ എന്നുള്ളത് ഇപ്പം ഞാൻ എന്താ ചെയ്ത് ഞാൻ എന്നാ ചെയ്താലും നല്ലതൊന്നും പറയത്തില്ല പിന്നെ എന്താ കാര്യം അ